ഹലോ ഗായ്സ് നമ്മള്ക്ക് എങ്ങനെ പാസ്പോര്ട്ടിന് അപേക്ഷിക്കാം എന്നതിനെപ്പറ്റിയൊരു വീഡിയോ ചെയ്യാനാണ് ഞാനാഗ്രഹിക്കുന്നത് നമുക്കതിനെപ്പറ്റി ഡീറ്റേയിലായിട്ടന്വേഷിക്കാം ആദ്യമായി നമ്മള് ചെയ്യേണ്ടിയത് പാസ്പോര്ട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ ആധാറിന്റെ ഡബ്ല്യു ഡബ്ല്യു ഏന്ഡ് ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റില് കയറുക അതിനുശേഷം നമ്മള് ആധാര് അതിന്റെ കോപ്പി ആധാര് നമ്പറടിക്കുക അപ്പോള് ആ അവിടെ ട റൈറ്റ് സൈഡിലൊരു ഇത് കാണും അതില് ക്ലിക്കീയ കഴിയാതാ അങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു കേസേ ഉള്ളു നമ്മള്ക്ക് ചെയ്യാവുന്നതേയുള്ളു അപ്പോള് നമ്മള്ക്ക് പാസ്പോര്ട്ടിന്റെ ആ ഒരു ആ ഇത് ഫോം ഫില്ലീയാനുള്ള ഇത് വരുന്നാണ്